എനിക്ക് ഏറ്റവും തോന്നിയത് നമ്മുടെ മുസ്ലിം മതമാണെന്നാണ് തോന്നുന്നത് ഓർക്ക് എപ്പോഴും ഒരു ഐക്യമുണ്ട് പിന്നെ ഒത്തൊരുമയുണ്ട് അതായത് എല്ലായിടത്തേക്കും അവർ ഇപ്പം അവരുടെ ആൾക്കാരും നമ്മുടെ ആൾക്കാർ മുമ്പിലോട്ട് വരിക നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ ഓരു മുമ്പിലോട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവർ മുമ്പിലോട്ട് വരുന്നത് നമുക്കല്ലേ നല്ലത് ഇപ്പോൾ ഓര് മുമ്പിലോട്ട് വരിക നമ്മൾ ഇപ്പം നമുക്കെന്തെങ്കിലും ഇപ്പം എന്ത് കാര്യത്തിലായാലും നമ്മുടെ ഇത് മുൻപിലോട്ട് വരാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒരു എന്താ പറയുക ഒരു കൂട്ടം എല്ലാവരും ഒരേ ബന്ധുക്കളാണെന്നുള്ളൊരു തോന്നലുണ്ട് അതേ എനിക്ക് മറ്റേ അമ്പലത്തിൽ മറ്റേ ഹിന്ദുക്കളിലെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം അവർ അവർ തന്നെയാണല്ലോ ഈ ആയിത്തവും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നത് പക്ഷെ നമ്മുടെ അതിൽ അങ്ങനെയില്ല നമുക്ക് അവർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ എല്ലാറ്റിലും മുമ്പോട്ട് വരണം കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയുള്ളത് മുസ്ലിം മതത്തിലായിട്ടാണ് എനിക്ക് തോന്നിയത്